ആ ഇതാരാണ് സംസാരിക്കുന്നത് അതെ അതെ ആണ് ആ ആ എന്താണ് ആ ഇവിടെ ആ ആ ഇവിടെ ഇപ്പം ആപ്പിളൊണ്ട് ആ ഇവിടെ ഇപ്പം ആപ്പിളൊണ്ട് ബനാനയുണ്ട് പിന്നെ എന്താണ് ചക്കേം ബനാന വാഴ് വാ ഈ ഏത്തപ്പഴം ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് ആ ഏത്തപ്പഴമുണ്ട് പിന്നെ രസകദളിയുണ്ട് ആ മോറിസ് പഴമുണ്ട് പിന്നെ ചക്കയുണ്ട് ചക്ക നാടൻ ചക്കയുണ്ട് അല്ലാതെ വ ആ വരിക്ക ചക്ക ആ ഇതിപ്പം അപ്പം രണ്ടുമുണ്ട് മാഡം രണ്ടും രണ്ട് ചക്കയുണ്ട് പിന്നെ ആ ഈ നെല്ലിക്കേം ആ നെല്ലിക്കയുണ്ട് പിന്നെ മുന്തിരിയുണ്ട് ആ പേരക്കയുണ്ട് അങ്ങനെ പലതരം ഫ്രൂട്ട്സൊണ്ട് മാഡം മാഡത്തിനേതൊക്കെയാണ് പപ്പായ ഇല്ല കേട്ടോ പപ്പായ ഇല്ല അത് ഇനി നാളെ ഓഡറ് വരത്തെ ഒള്ളു നാളെ ആണ് ആ ഓഡറ് ചെയ്തെങ്കിൽ മാഡത്തിന് നാളെ കൊണ്ട് വരാം അല്ലെങ്കിൽ ഈ വരുന്ന ഇന്നത്തെ ആവശ്യത്തിനാണൊ ഓ ആ ആ ആ കിലോയ്ക്ക് നെല്ലിക്ക മുപ്പതാണ് മാഡം മുപ്പതാണ് ആ മുപ്പത് ആ ആ ഡെലിവറി അതിന് പറ്റും ആ ലൊക്കേഷൻ പറഞ്ഞാൽ മതി ആ ഇപ്പോൾ മേഡം ഈ ഒരു ആ നെല്ലിക്ക വേ മാത്രം മതിയോ അതോ നമുക്ക് ഇപ്പോൾ ഒരു പാക്കറ്റായിട്ട് തരുകയാണെങ്കിൽ നെല്ലിക്കയും പിന്നെ ഈ പഴവും ചക്കയും കൂടെ ഒരുമിച്ചൊരു പാക്കറ്റായിട്ട് നമുക്ക് തരാൻ പറ്റും അങ്ങനെ വാങ്ങാണെങ്കിൽ വില ആ അധികം ആ ഈ മൂന്നും കൂടെ വാങ്ങുന്ന സമയത്ത് നൂറ് രൂപക്കകത്തെ ആവത്തൊള്ളു ആ അങ്ങനെ അതെ മൂന്നും കൂടെ വാങ്ങാണെങ്കിൽ അത് ഓഫറാണ് മൂന്ന് നൂറ് രൂപയ്ക്കകത്തെ ആവുവ്ള്ളു പഴം ആ മേഡത്തിന് ഇഷ്ടമുള്ള പഴം പറഞ്ഞാൽ മതി ഏതായിരുന്നാലും തരാം ആ പറ്റും പറ്റും പറ്റും പറ്റും ആ ആ പറ്റും കുഴപ്പമില്ല അത് തരാം അല്ല ആ മുള്ളോട് കൂടിയാണ് മാഡം അത് അമ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ അതിൻ്റെ ഇതില്ല ക്ലീൻ ചെയ്ത് എടുക്കണം ആ മുള്ളോട് കൂടിയാണ് ഇപ്പോൾ ചക്ക തരുന്നത് സാധാരണ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്താണ് കൊട്ക്കാറ് പക്ഷേ ഇപ്പം അതിൻ്റ ആൾ വന്നിട്ടില്ല അത്കൊണ്ട് ആ ആ മുള്ളോട് കൂടെയാണ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് അരക്കിലോ ആണ് ചക്കേടേത് പറയുന്നത് ആ മുള്ളോട് കൂടെ ആവുമ്പോൾ ഒരു കിലോ ചക്ക തരാം കുഴപ്പമില്ല ആ കൊണ്ട് വെരാൻ പറ്റും പറ്റും പറ്റും എവിടെയാണെന്ന് മാഡം ലൊക്കേഷൻ കറക്റ്റൊന്ന് പറയാവോ ആ ആ ശ്രീകാര്യം ആ ആ വെച്ചേക്കാം കറുക ഇല ഓ ഓ അപ്പോൾ ഇന്ന് ഇപ്പോൾ ആ ഇപ്പം പതിനൊന്ന് ആ ഒരു ഒരു മണിക്കകം വെച്ച് ഡെലിവറി ചെയ്താൽ മതിയോ മാഡം ഓക്കെ ആ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ ആ ബി സിയാണെന്ന് പറയുവാണ് എങ്കിൽ ആ അത് ഞാൻ വേറൊരു നമ്പരും കൂടെ മാഡത്തിനിപ്പം തരാം ആ ആ ആ ചിലപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും വേറൊരു നമ്പരും കൂടെ തരാം ആ ആ തരട്ടേ പറയട്ടേ ആ പറയട്ടേ ആ ആ ആ നൈൻ ഫൈവ് സിക്സ് സെവൻ

വൺ ടു വൺ ത്രീ ഈ ഒരു നമ്പരിൽ വിളിച്ചാൽ മതി ആ ചിലപ്പോൾ ഈ കസ്റ്റമേസ് വിളിച്ചോ ഇതുപോലെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോൾ ഇതെൻ്റെ ഒ കടയിലെ നമ്പരാണ് ഇല്ലത് ഇതെൻ്റെ പേസ്ണൽ നമ്പരാ ഇപ്പം ഏതിൽ വിളിച്ചാലും അവൈലബിളായി മാഡം വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ആ കിട്ടും ഓക്കെ ഓക്കെ താങ്ക് യൂ മേഡം താങ്ക് യൂ ആ എത്തുമ്പോൾ തന്നാൽ മതി കയ്യിൽ ആ കയ്യിൽ തന്നൊ ഇപ്പം മേഡത്തിന് അങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പരിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആ കയ്യിൽ തന്നാലും മതി ആ ഹാ ആ ശരി ശരി ആ ഇപ്പോൾ വേറൊന്നും വെ ഇല്ലല്ലൊ വേ വേണ്ടല്ലൊ മാഡം ഈ മൂന്ന് മൂന്ന് ഐറ്റം മതിയല്ലൊ അല്ലെ ആ ആ ഓക്കെ ഓക്കെ ശരി മാഡം താങ്ക് യൂ